നമ്മുടെ കാലാവസ്ഥ മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ചൂട് അനുഭവപ്പെട്ടത് അനുഭവപ്പെട്ട് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് അത് സഹിക്കാനുള്ള നല്ലൊരു ഫാൻ വേണമെന്നെനിക്ക് തോന്നി അങ്ങനെ ഞാൻ പല കടകളിലും അന്വേഷിച്ച് നോക്കിയപ്പോൾ ഓരോ കടകളിലും വില കൂടുതലായിട്ടെനിക്ക് തോന്നി അപ്പം ഞാനത് ഇന്റർനെറ്റിൽ ഓരോ കമ്പനിടേം വില നോക്കിക്കഴിഞ്ഞപ്പോൾ പല കമ്പനികളുടേം വില കടകളുടെ വിലയേക്കാൾ കുറഞ്ഞതായിട്ട് എനിക്കനുഭവപ്പെട്ടു അപ്പം ഞാൻ ഓൺ ലൈനായിട്ട് അതിൽ ഏറ്റോം കുറവുള്ള ഒരു ഫാൻ കമ്പനിയായിട്ട് കോൺടാക്റ്റ് ചെയ്തു ഓൺ ലൈലൈൻൽ അവിടെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തു അത് ഓർഡർ വന്ന് ഈ ഓൺലൈനായിട്ടീ വീട്ടിൽ വന്ന സമയത്ത് ഞാനത് പോലെ പെട്ടിച്ച് നോക്കി ഓപ്പറേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തികച്ചും സംതൃപ്തിയായി കാരണം വില കുറവുവാണ് സാധനം നല്ല ക്വാളിറ്റിയുള്ളതായിട്ടെനിക്ക് തോന്നി അതിൻ്റെ ഓസിലേഷനും അതിൻ്റെ സ്പീഡ് റേഞ്ചും ഒക്കെ എനിക്ക് നല്ല അനുഭൂതിയായിട്ടെനിക്ക് തോന്നി വെരി ഗുഡ്